ഇപ്പോൾ എൻ്റെ ജോലിയുടെ കരിയർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ജോലിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ലൊരു സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലെ നമുക്ക് അത് മുന്നോട്ടു പോവനുള്ളൊരു ഒരു ചാൻസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് നല്ലൊരു ജോലിയാണ് വേണ്ടത് അത്യാവശ്യം നല്ലൊരു സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഒരൂ ഓരോരോ പൊസിഷൻ ഉണ്ടാവല്ലോ അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ടു പോകണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം ഉള്ളത് പിന്നെ ഭാവീനെ കുറിച്ച് പറയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മളെ കുട്ടികളെ നോക്കാനും നം ഭാര്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവരെ നോക്കണമെങ്കിലും നമുക്ക് പൈസ എന്തായാലും അ അത്യാവശ്യമായിട്ടാണ് ഉള്ളത് പക്ഷേ ഇന്ത്യയിലെന്നു പറഞ്ഞുകഴിഞ്ഞാൽ കൂടിപ്പോയാൽ പതിനഞ്ച് ഇരുപത് അതിൽ കൂടുതൽ സാലറികളൊക്കെ കിട്ടുന്നത് കുറവാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ജോലിയൊക്കെ കിട്ടണമെങ്കിൽ ഗവൺമെൻ്റ് ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം കൂടുതലാൾക്കാരും പുറത്തേക്ക് പോകുന്നത് സാലറി കൂടുതൽ കിട്ടാൻ വേണ്ടീട്ട് ആണ്